സൂപ്പർമാർക്കറ്റല്ലേ കട്ടപ്പന ഗ്ലോബൽ ഗ്ലോബൽ സൂപ്പർമാർക്കറ്റല്ലേ സാർ ഇത് തോപ്രാങ്കുടിയില്നിന്നായിരുന്നു വിളിക്കുന്നതേ നമുക്കാ ശകലം വീട്ടുസാധനങ്ങള് പലവ്യഞ്ജനങ്ങള് വേണമായിരുന്നു അപ്പോള് സാറത് ഓൺലൈനായിട്ട് നമുക്കൊന്ന് തോപ്രാങ്കുടിക്കെത്തിച്ചാമതിയെ അപ്പോള് അത് ലിസ്റ്റ് ഞാന് തരാം അപ്പോള് ഇന്ന് എന്തേലും മാർക്കറ്റിലെന്തേലും വ്യത്യാസമുണ്ടോ നമ്മുടെ പവിഴം റൈസിന് എങ്ങനെ പവിഴം റൈസിൻ്റെ റേറ്റ് എന്താണ് പവിഴം റൈസിൻ്റെ റേറ്റ് എങ്ങനെയാവും അമ്പത്തിയൊന്ന് രൂപാ കിലോയ്ക്കാ ഓഫർ വല്ലതുമുണ്ടോ ഇപ്രാവശ്യം വിലയൊന്നും കുറയില്ല മറ്റേ അമ്മയ്ക്കോ റേറ്റ് ഇത്തിരി കൂടുതലാണല്ലോ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എങ്ങനെയാവും ഡിസ്കൗണ്ടുകൂടെ ഒഴിവാക്കിയിട്ട് എങ്ങനെയാവുമെന്ന് നമുക്ക് ഒരു ഒരു ചാക്ക് കയറ്റിവിട്ടേരേര് അ അതും പിന്നെ ശകലം ചില്ലറ ചില്ലറ സാധനങ്ങളും ഇച്ചിരി കുറച്ച് കടലയും ശകലം പഞ്ചസാര കുറച്ച് മൈദ ഒരഞ്ച് കിലോ വച്ച് എല്ലാംകൂടേയ് എല്ലാം കൂടൊരഞ്ച് അഞ്ചു കിലോ പഞ്ചസാരയും ഒരു അഞ്ചു കിലോ അല്ല പത്തു കിലോ പഞ്ചസാര എടുത്തേരെ ഒരു അഞ്ചു കിലോ മൈദയും ഒരു അഞ്ചു കിലോ റവയും ഒരു അരക്കിലോ ഉള്ളി സാറൊന്ന് ഞാന് വാട്സാപ്പിലേക്കയക്കണോ അതോ സാറിത് എഴുതി എടുക്കുമോ ആ എന്നാല് ഞാനതിന്റെ ആ സാറെന്നാ ഞാൻ ഡീറ്റൈൽ ഞാന് അങ്ങോട്ട് അങ്ങോട്ടയച്ചേക്കാം മ്മ് എൻ്റെ ഫോൺ നമ്പര് ഇപ്പോള് സാര് ഫോൺ നമ്പര് ഇതിലുണ്ടല്ലോ ഞാന് ഫോൺ നമ്പര് ഇതിലുണ്ടല്ലോ അപ്പോള് അതെല്ലാം കൂടെ കൂട്ടി ഒന്ന് അത് ഇപ്പോള് ഞാന് ആയിക്കോട്ടെ നമ്മള് ഇപ്പോള് അങ്ങോട്ടൊന്നു ചെയ്യാം സാമ്പത്തികം എത്രയാണെന്ന് ഇങ്ങോട്ട് അതു കുഴപ്പമില്ല സാറെല്ലാംകൂടെ കൂട്ടി ഇങ്ങോട്ടൊന്ന് ഇത് ചെയ്താല് മതി വാട്സാപ്പിൽ സെൻഡെയ്താല് ഞാന് തിരിച്ച് ഗൂഗിൾ പേ ചെയ്തോളാം ഓക്കെ സാറെ നമുക്കൊരു ശകലം കഴിയുമ്പോഴത്തേന് ചെയ്തേക്കാവേ ഞാന് വാട്സാപ്പിലയച്ചുതരാം ഓക്കെ താങ്ക്യൂ